ഹ ഡോക്ടറല്ലേ ആ ഡോക്ടർ രണ്ട് ദിവസമായിട്ട് പനിയാണ് ആ ചെറുതായിട്ട് നനഞ്ഞായിരുന്നു ഐസ്ക്രീം കഴിച്ചായിരുന്നു

ഒരു മൂന്ന് ദിവസമായി കാണിച്ചില്ല ആ വീട്ടിൽ പാരാസെറ്റമോള് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരെണ്ണം എടുത്തു കഴിച്ചു പക്ഷേ കുറവില്ല ആ ആ ആ ഇണ്ട്ണ്ട്

വേറെ ചുമയുണ്ട്

ആ ആ ആയിക്കോട്ടെ ബുദ്ധിമുട്ടായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ കഫക്കെട്ട് ഭയങ്കര ഇതായിട്ടുണ്ട് ആ പക്ഷേ അത് മരുന്നിവിടേ ഇല്ലാ പാരാസെറ്റമോള് മാത്രമേ ഉള്ളൂ ആ പാരാസെറ്റമോള് ഞാൻ കഴിച്ചായിരുന്നു പക്ഷേ പനി രാത്രി വിടുന്നുണ്ടെങ്കിലും ആ ഒരു ഉച്ചസമയത്തൊക്കേ കഫം അങ്ങോട്ട് കയറിയിട്ട് തലക്ക് ഭയങ്കര ഇതാകുന്നുണ്ട് ആ നാളെ ഫ്രീ ആണ്

ആന്നെ ആ അറിയാം

ആ ആയിക്കോട്ടെ ഓക്കേ